വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന ടൗണ് ടൗണില് മേലെ പെട്രോൾ പമ്പിന് തൊട്ട് ഇപ്പറത്തുള്ള സെഞ്ച്വറി ഹോട്ടലിന് താഴെയുള്ള ഒരു താഴെ സ്റ്റെപ് ഇറങ്ങി പോകുമ്പോൾ രണ്ടാമത്തെ പൂമ്പാറ്റ എന്ന ഫാൻസി അത് അവിടേക്ക് എത്തിക്കണം